മുട്ടുവേദനയൊക്കെ വന്നുകഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് മെയിനായിട്ട് ചെയ്യുന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൊട്ടൻ ചുക്കാദി പോലുള്ള തൈലങ്ങളൊക്കെ യൂസ് ചെയ്ത് തിരുമ്മലൊക്കെയായിരുന്ന് പിന്നേ ഈ ഉളുക്കുപോല സംഭവങ്ങളൊക്കെയാണെങ്കി കാല് ഇതാവാൻ എന്തേലൊക്കെ പറ്റിയതാണെങ്കി ഇടറുവോ അങ്ങനോക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചില നാട്ടുവൈദ്യൻമാര് പോലുള്ള ആൾക്കാരൊണ്ട് അവരുടടുത്ത് പോയിട്ട് ഉളുക്ക് പറ്റാ അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാലും വേദന മാറുന്നവരുണ്ട് പിന്നെ ചൂട് വെള്ളത്തില് ഉപ്പിട്ട് തിളപ്പിക്കുക അത് വെച്ചിട്ട് ആവി പിടിക്കുക തോറത്ത് മുക്കിയതിന് ശേഷം അത് പിഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വേദനയുള്ള ഭാഗത്ത് ആവി പിടിച്ച് കൊടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ തിരുമ്മാൻ ഓരോ വൈദ്യൻമാരുടെ അടുത്തുപോയി തിരുമ്മിക്കുന്നൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് അങ്ങനൊള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനെപ്പറ്റി വല്യ കാര്യായിട്ട് അറിയത്തുള്ളു വേറെ മുട്ടുവേദന അങ്ങനെയുള്ള ഒന്നും നമ്മള് മെയിനായിട്ട് അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് ക്ലിയറായിട്ട് നമ്മളതിനെപ്പറ്റി അങ്ങിനെ അന്വേഷിക്കയുമില്ല ഇപ്പോൾ ഇങ്ങിനൊക്കെയാണ് നമുക്കറിവിലുള്ളത് കാരണം ഇങ്ങനെ കൊട്ടൻ ചുക്കാദി പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ഇതാക്കാ പിന്നെ ഉളുക്ക് വെട്ടുവ അങ്ങനത്തെ പരിപാടികളക്കെയാണ് നമ്മള് കണ്ട് വരുന്നത്